എനിക്ക് കുറച്ച് പൂക്കൾ വേണേ ആ ഞാൻ കുറച്ച് പൂക്കൾ വേണം എനിക്ക് റോസയും വേണം മുല്ലപ്പൂവും വേണം അപ്പം റോസ് ഏത് കളറൊക്കെ ഉണ്ട് ആ അത് മൂന്നും വേണം ആ എങ്ങനെയാ വില കിലോ അനുസരിച്ചല്ലേ

ആ ഞങ്ങളുടെ ഞങ്ങൾക്കൊരു കല്ല്യാണ ആ പരിപാടിയാണ് ആ ആ അപ്പം വീടിനകത്ത് ഹാളിനകത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാ റോസ് ആ ആ അന്നേരം വേണം അല്ലേ ആ അപ്പോൾ അതൊരു ഇരുപത് കിലോ എടുത്തോ എടുത്തേക്കേ പിന്നെ മുല്ലപ്പൂ വേണേ അത് നമുക്ക് തലയിൽ ചൂടാൻ വേണ്ടിയാണേ അത് ആ ഒരു അതെയോ ആ ആ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് വേണം അതും ഒരഞ്ചാറ് മുഴം വേണമായിരിക്കും അന്നേരം ആണോ ആ അപ്പം വരും ആ അപ്പം വെളുപ്പിനേ വാങ്ങിക്കാം വെളുപ്പിനേ വന്നാൽ മതിയോ അതോ വൈകീട്ടത്തേക്കാണോ രാവിലെയാവുമ്പം ആണോ ആ ഓക്കെ ആ എന്നാൽ ശരി രാവിലത്തേക്ക് വെളുപ്പിനെ വന്നേക്കാം എപ്പോഴാ തുറക്കുന്നേ കട

ആ ഓക്കെ റോസാ ഇപ്പോൾ എടുത്ത് വെക്കേണ്ട ആ മതി മതി ആ മതി ഓക്കെ ഞങ്ങൾ വീട്ടിൽ തരാം ആ അവിടുത്തെ ആ ഓക്കെ ആ ആ ഓ ആ ഏത് ജോളി ആ റെഡിയായി ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ശരി താങ്ക് യൂ